ഒരു വീട് നോക്കാനായിരുന്നു സെൻറ്ററിൻ്റെ വീടിന്ന് സ്ഥലം നോക്കാനായിരുന്നു സെൻറിനൊക്കെ എങ്ങനെയാണ് വില എന്ന് അറിയുന്നത് ഞാൻ കോഴിക്കോട് ജില്ലയിൽ

ഒരു ഒരു ഒരു അങ്ങാടയിൽ ചുറ്റുവട്ടത്തിന്ന് മതി അവിടെ റേറ്റ് കൂട്ടുക നമുക്ക് കോഴിക്കോടാണ് കോഴിക്കോട് ബിസിനസ്സാ അതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിക്കെ അവിടെ കൂടെ വരില്ല ആ അതെ അതെ വീടാണ് ഉദ്ദേശിക്കുന്നത് ആ എന്നാണ് ഡെലിവറി ഉദ്ദേശിക്കുന്നു ഒരു ബിസിനസ്സ് മാനായതു കൊണ്ട് എവിടെയും പോകും ഇല്ല ഇല്ല ഒന്നരക്കോടി ഓക്കെ

ഓക്കെ ആ നല്ല ഏരിയ ഉണ്ടാവില്ലേ

അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോകില്ല അങ്ങോട്ട് ഒപ്പം പോകാൻ അങ്ങനെ ഓക്കെ എന്റെ വീട് ഇപ്പം മലപ്പുറം ആണ്

ആ ഓക്കെ ഓക്കെ എന്നാൽ ശരി താങ്ക് യൂ